എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ഒരു നാട് തന്നെയാണ് ഇന്ത്യ മെയിനായിട്ട് പറയാണങ്കിൽ ഹോളി ഹോളി പ്രധാനമായിട്ടും ആദ്യമൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് മാത്രമായിരുന്നു ആഘോഷിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അത് കേരളത്തിലേക്കും ആഘോഷം വന്നിട്ടുണ്ട് കോളേജിലൊക്കെ ആയിരുന്ന സമയത്താണ് മെയിനായിട്ടും ആഘോഷിച്ചിരുന്നത് വീട്കളിലൊക്കെ അങ്ങനെ കേരളത്തിലെ വീട്കളൊന്നും അങ്ങനെ മെയിനായിട്ട് ഹോളി ആഘോഷിക്കുന്നില്ല എങ്കിൽക്കൂടി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്ന് തന്നെയാണ് ഹോളി എന്ന് നമുക്ക് പറയാം മാർച്ചിലാണ് ഹോളി വരുന്നത് അതൊരവധി ദിവസം തന്നെയാണ് പിന്നെ വിഷു വിഷു ഏപ്രിൽ പതിനാലിനാണ് ഉണ്ടാകാറ് അത് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മളെല്ലാരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് വിഷു വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയൊക്കെ ഇട്ട് ഒരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയാണത് പിന്നെ ഓണം ഓണം ഒരു വലിയ ഒരാഘോഷം തന്നെയാണ് പത്ത് ദിവസത്തെ അത്ത പൂക്കളമൊക്കെ ഒരുക്കി ഓണക്കോടി ഒക്കെ ഇട്ട് പത്ത് ദിവസങ്ങളിലും വീടുകളിൽ അത്ത പൂക്കളം ഇടുന്നത് ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് പിന്നെ അതും ഒരവധി ദിവസം തന്നെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും എല്ലാടവും ഓണാമാഘോഷിക്കുന്നുണ്ട് അത്ത പൂക്കളം ഒരുക്കി ഓണ സദ്യ കഴിച്ച് എല്ലാരും സന്തോഷത്തോടെയാണ് പിരിയുന്നത് പിന്നീട് ക്രിസ്മസ് പറയാം ക്രിസ്മസ് ഡിസംബർ ഒരു വർഷത്തിന്റെയവസാനം വരുന്ന ആഘോഷമെന്ന് തന്നെയാണ് ക്രിസ്മസ്സിനെ പറയേണ്ടത് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി ക്രിസ്മസ് കേക്ക് വൈൻ എല്ലാ വീടുകളിലും നക്ഷത്രങ്ങളൊക്കെ തൂക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് സന്തോഷമുള്ളൊരു കാഴ്ചയാണ് ഡിസംബർ പകുതിയോടടുക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് എല്ലാ കടകളിലും സ്ഥാപനങ്ങളിലൊക്കെ വീടുകളിലും എല്ലായിടുത്തും സ്റ്റാർ കത്തീട്ടുണ്ടാവും രാത്രി യാത്രയിലാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസിലാകുന്നത്